വളരെ മോശം ഒരഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം അതായത് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് പക്ഷെ എന്നുവെച്ചാലും എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഫെസിലിറ്റീസുണ്ട് പക്ഷേ അതിനനുസരിച്ചുതന്നെ പൈസയുണ്ട് ഇപ്പോൾ ഒരു പനി വന്ന് ഒരു ആശുപത്രി കയറുകയാണെങ്കിൽ തന്നെ ഐ മീൻ ഗവൺമെൻ്റ് ആശുപത്രി എന്നുവെച്ചാൽ ഫ്രീ ആണെന്ന് പറഞ്ഞാലും പ്രൈവറ്റ് ആശുപത്രികളിൽ അതായതൊരു പനി വന്നാൽ തന്നെ കുറഞ്ഞതൊരു പത്ത് ഇരുപതിനായിരം രൂപ നമ്മുടെ കയ്യിൽനിന്നാണ് പോകുന്നത് അപ്പം ഫെസിലിറ്റീസുണ്ടെങ്കിലും അതിനനുസരിച്ച് കൊള്ള കൊള്ള തുകയാണ് നമ്മുടെകയ്യിൽനിന്ന് ഈടാക്കുന്നത് അതുപോലെതന്നെ കോവിഡ് സമയത്ത് എങ്ങനെയാണെന്നു വെച്ചാൽ ഓഫ് കോഴ്സ് ഡോക്ടർമാരാണ് നേഴ്സ്മാരാണെങ്കിലും അവരെക്കൊണ്ട് പറ്റുന്നതിലും കൂടുതൽ അവര് നമുക്കുവേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ എന്തൊക്കെയാണെന്ന് എന്താണെന്നു വെച്ചാൽ അവർ സ്വന്തം വീട്ടിൽ പോവാതെ സ്വന്തം മക്കളെ കാണാതെ സ്വന്തം കുടുംബക്കാരെയും കൂട്ടുകാരെയും ഒന്നും കാണാതെ ആശുപത്രിയിൽ തന്നെ കോവിഡിനുവേണ്ടി കോവിഡിനെ നേരിടാൻ നേരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ചു നോക്കുമ്പോൾ ഓക്കെ നെഴ്സ്മാരും ഡോക്ടർമാരും നല്ലതൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ രാജ്യത്തെ ആശുപത്രികളിലെ തുക അതായത് നമുക്ക് താങ്ങാനാവുന്നതിലും അധികമാണ് കാരണം എന്നു വെച്ചാൽ കുടുംബത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ആ കുടുംബം തന്നെ തകരുന്ന ഒരവസ്ഥയാണ് അതായത് ലക്ഷങ്ങളും കോടികളുമാണ് ഒരു സർജറിക്കും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു സാധാരണ കുടുംബത്തിന് താങ്ങാൻ പറ്റത്തില്ല അവർ ചിലപ്പോൾ ലോണെടുത്തും വീട് പണയം വെച്ചും ഉള്ള സാധനങ്ങളെല്ലാം വിറ്റും പെറുക്കിയും ഒക്കെയായിരിക്കും ആശുത്രികളിൽ പൈസകൾ അടയ്ക്കുന്നത് അപ്പോൾ അതൊരു നല്ല പ്രവർത്തി ആയിട്ടല്ല എനിക്ക് തോന്നുന്നത് അതായത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെയൊരു നല്ല പ്രവർത്തിയായിട്ടല്ല എനിക്ക് തോന്നുന്നത് പിന്നെന്താ ഇപ്പോൾ പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിത്തന്നെ അതായത് രോഗമൊന്നുമില്ലാത്ത ആൾക്ക് വേറൊരു അസുഖത്തിൻ്റെ മരുന്ന് കുത്തിവെച്ച് അത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും ആ ആശുപത്രിയിൽ തന്നെ വന്ന് അഡ്മിറ്റാവുകയും പിന്നെ ഒരാവിശ്യവുമില്ലാതെ കുറേ നാളുകൾ അവിടെ കിടത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ കുറേ പൈസ അതായത് ഒരാവിശ്യവുമില്ലാണ്ട് തന്നെ പൈസ പോയിട്ടുണ്ട് അതായത് എനിക്ക് എൻ്റെ കണ്മുന്നിൽ കുറേ അനുഭവങ്ങൾ ഉണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ മാക്സിമം കഴിവ് കഴിയാവുന്നതിലും ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ